ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുകുകളിലൂടെ പരക്കപ്പെടുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് അതായത് കെട്ടിക്കിടക്കുന്ന ജലം ഒരു കാരണവശാലും ജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക അഥവാ ജലം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുകുകൾ മുട്ടയിട്ട് കൂടുതൽ വിരിയാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അതല്ലായെങ്കിൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കയും ഈ രോഗങ്ങൾ പകരാൻ കാരണമാകുകയും അതിലൂടെ നമ്മുടെ പ്രദേശത്ത് ഒരു ഒരു അരാജകത്വം അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത്